ഹലോ ബ്രോ എടാ നിനക്ക് ഈ വീക്കെൻഡ് പ്ലാൻ വല്ലതുമുണ്ടോ എടാ വീക്കെൻഡ് പ്ലാൻ വല്ലതുമുണ്ടോ ആ ഇല്ലേ അതെന്താണ് ആ എടാ എനിക്കൊരു ചെറിയൊരു പ്ലാനുണ്ടായിരുന്നു നമുക്ക് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് വരുന്നില്ലേടാ അതൊക്കെ പോരെ ഇതൊക്കെ നമുക്കൊരു എൻജോയ്മെൻറ്റല്ലേ നമുക്കൊന്ന് പോയാലോ അടുത്ത ശനിയാഴ്ച അതിന് നീ കിടന്നുറങ്ങാൻ പോകുകയല്ലേ അതിനും ഭേദമല്ലേ ഇത് എടാ എടാ നീ ഇവിടെ കിടന്ന് നീ ഉറങ്ങുന്നതിനെക്കാളും ഭേദം ഇതാണ് കേട്ടോ നീ ഇപ്പം എപ്പോഴും കിടന്ന് നമുക്ക് ഉറങ്ങാനാണെങ്കില് എപ്പോള് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതുപോലത്തെ മാച്ച് വല്ലതും കാണുന്നത് ഇടയ്ക്കിടയ്ക്കെയുള്ളൂ കൊച്ചിയിലല്ലേ മാച്ച് നടക്കുന്നത് നിനക്ക് കോട്ടയത്തുനിന്ന് നിനക്ക് അവിടെനിന്ന് എന്താണ് ഒരു ഒന്നരമണിക്കൂർ മതി ഞങ്ങള്ക്ക് ഇവിടെനിന്ന് ഒന്ന് ഒരു മണിക്കൂർ മതി വേണമെങ്കില് അവിടെനിന്ന് അടുത്ത് മീറ്റ് ചെയ്യാം നമുക്ക് എവിടെ നിന്നെങ്കിലും നമുക്ക് ഫുഡ് വല്ലതും അടിച്ചിട്ട് നമുക്ക് വേണമെങ്കില് അങ്ങോട്ട് പോകാം സമയം എന്താണ് ഒരു മാച്ച് വൈകുന്നേരമല്ലേ അപ്പോള് നമുക്കൊരു അഞ്ചരയൊക്കെയാകുമ്പോഴേക്കും മീറ്റ് ചെയ്യാനുള്ള രീതിയില് നീ രാവിലെ വേണമെങ്കില് കിടന്നുറങ്ങിക്കോളൂ വൈകുന്നേരം പോകാം മാച്ച് ബാംഗ്ലൂര്

അവര് ആ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ആ വരുമല്ലോ ഉറപ്പാണോ അത് അങ്ങനെയാണെങ്കില് നമുക്ക് ഓ പിന്നെ മ്മ് അപ്പോള് ഫുഡ് കഴിക്കാതിരുന്നാലോ അപ്പോള് നീ ഇങ്ങനെ എടാ നമ്മുടെ സ്ഥിരം ആൾക്കാര് നമുക്ക് സാഞ്ചസിനെയും അവരെയൊക്കെ വിളിക്കാം അയ്യോ പിന്നെ അവര് നിൻ്റെ നാട്ടുക്കാര് തന്നെയല്ലെ അവര് അവരൊക്കെ ഒറ്റ മൈൻഡ് ആൾക്കാരാണ് ഇപ്പോള് ഇപ്പോള് വരും ആ ടിക്കറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം ടിക്കറ്റ് ആ ഞാൻ ഫുഡിൻ്റെ കാശ് ഞാനെടുക്കുകയാണെങ്കില് ടിക്കറ്റിന്റെ കാശ് നീ എടുക്കുമോ ടിക്കറ്റെനിക്ക് തോന്നുന്നു ഒരു ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാൻ റേറ്റ് നോക്കിയില്ല കറക്ട് ആ എനിക്കറിയില്ല ഞാൻ ഞാൻ ഇപ്പോഴാണ് ഐഡിയ കിളിർത്തുവന്നത് അല്ല നീ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാക്കൂ അതുകഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കില് ബാക്കി കാര്യം നോക്കാം ആ വരുമല്ലോ എന്നാല് നമുക്ക് സാഞ്ചസിനെയൊക്കെ വിളിക്കാം ആ അവര് മിക്കവാറും വണ്ടി എടുക്കുമായിരിക്കും കേട്ടോ എല്ലാവരും കൂടെ ഒരു വണ്ടിയില് കയറിയങ്ങ് പോയാല് പോരെ മൂന്നു നാല് പേരല്ലേയുള്ളൂ അത്രയെയുള്ളൂ ആ ഓക്കെ എന്നാല് കാണാം